ധഫാൻ ഹോട്ടലല്ലേ ആ ഞാൻ ഫുഡ്ഡ് ഓഡറ് ചെയ്യാൻ വേണ്ടീട്ട് വിളിച്ചതാണ് ആ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയാമ്പത്തേക്ക് മതി ഹോം ഡെലിവറിയില്ലേ ഹോം ഡെലിവറിയില്ലേ ആ അപ്പം നമുക്കൊരു അഞ്ചാൾക്കുള്ള ബിരിയാണി വേണം മലബാർ ബിരിയാണി ചിക്കൻ ബിരിയാണി പൊരിച്ചത് മതി പൊരിച്ചത് മതി കഴിഞ്ഞ പ്രാവശ്യം പൊരിക്കാത്ത വാങ്ങിട്ട് കുഴപ്പമില്ലാരുന്നു പക്ഷേ കുട്ടികൾക്കിഷ്ടം പൊരിച്ചതാണ് അപ്പോൾ പൊരിച്ചത് മതി ആ അഞ്ചാൾക്ക് ആ പിന്നെ പുട്ടും കടലക്കറിയും വേണം പുട്ടൊരു രണ്ട് കഷ്ണം പുട്ട് ഒരു കുറ്റി വേണ്ട രണ്ട് കഷ്ണം പുട്ട് അല്പം കടലക്കറിയും ആ പിന്നെ വേറെന്താ ഉള്ളത് ഇടിയപ്പം ഉണ്ടോ ഇടിയപ്പത്തിനെന്താണ് കറിയുള്ളത് ആ ഗ്രീൻ പീസ് കറിയാണോ മുട്ടക്കറിയില്ല ആ ചെയ് ആ മുട്ടക്കറിയാണെങ്കിൽ മുട്ട നല്ല വേവിച്ചെടുത്തോ ആ വല്യപ്പാക്ക് കഴിക്കാനാണ് ആ വല്യപ്പാക്ക് പല്ലില്ല അപ്പോൾ പല്ലില്ലാത്തടത്ത് ചവച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് ഗ്രേവിക്ക് വെച്ചാൽ മതി ഉള്ളി അധികം കടിക്കുന്ന ടൈപ്പ് വേണ്ട കുറച്ച് വേവിച്ച് വരട്ടീട്ട് വെച്ചോ ആ സ്പൈസി ആവണ്ട എരിവ് എരിവ് എരിവധികം പറ്റൂല വല്യപ്പാക്ക് കുറച്ചോ ബിരിയാണീൽ സ്പൈസായിക്കോട്ടെ ബിരിയാണിയൊക്കെ ഇച്ചരെ സ്പൈസി ആയിക്കോട്ടെ പ്രശ്നമില്ല ഇല്ല അതൊന്നും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ല വയസാകാലത്തും ഇപ്പോഴും നല്ല ആരോഗ്യം തന്നെയാണ് എരിവ് കുറച്ച് കുറച്ചാൽ മതി വേറെ പ്രശ്നോന്നുമില്ല വല്യപ്പാക്ക് മാത്രം ആ ആപ്പയിനാ അച്ഛനെന്താണ് ഉള്ളത് കുടിക്കാൻ എന്തൊക്കെയാണ് ഉള്ളതവിടെ ആ ആ പഞ്ചസാരയിടാത്തൊരു ഫ്രഷ് ജ്യൂസ് വെച്ചോ കൂടെ ഓറഞ്ചോ ഓ ഓറഞ്ച് മതി ഓറഞ്ച് മതി ഓ ആ ഒറ്റ ഒറ്റിത് മതി പിന്നെ ചായ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കൊണ്ടത് വേണ്ട ഈ ഫ്രഷ് ജ്യൂസൊന്ന് വെച്ചോ ഓറഞ്ചിൻ്റെ ഏയ് അതൊന്നും വേണ്ട അങ്ങനൊന്നും വേണ്ട നമ്മളൊക്കെ നോമ്പൊറുക്കുന്ന സമയത്തൊക്കെ ഇത് മതി ആ മുട്ടക്കറി മുട്ടക്കറി ആ ഓക്കെ ഓക്കെ പൈസ പൈസ നേരത്തെ തരണ്ടാവശ്യമില്ലല്ലോ ആ പിന്നെ അഡ്രെസ്സ് ഞാൻ വാട്സപ്പിലിടാം ആ ശരി ശരി ശരി